വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് സൈക്കിളും ലാപ്ടോപ്പ് ഒക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട് കാരണമെന്നു വെച്ചുകഴിഞ്ഞാൽ വാങ്ങിക്കൊടുക്കുവല്ല നമ്മുടെ സ്കൂളുകളിൽ നിന്നൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ വിദ്യ ലാ സ്ത്രീകൾക്ക് മാത്രമല്ല അതായതിപ്പോൾ ആദിവാസി സമൂഹത്തിൽ പെട്ട ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കടക്കം കൊടുക്കുന്നുണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അപ്പോൾ അദ്യമുള്ള പിള്ളേർ അതായത് പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് പോവുക അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പോൾ ബാക്കി പാ പഠനം പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു ഇതിലായത് കൊണ്ട് അപ്പോൾ അവർക്കും കൂടെ താൽപ്പര്യം വരാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ ലാപ്ടോപ്പ് ഒക്കെ അവർക്കും മേടിച്ച് ഇത് സ്കൂളുകളിൽ നിന്നും ഗവൺമെൻ്റ് കൊടുക്കുന്നത് അപ്പം അവരിൽ പലരും പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിലും ചിലർ പ്രയോജനപ്പെടുത്തുന്നില്ല അപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് അവർ വീട്ടിൽ ഇരിക്കുവാണ് പതിവ് അപ്പം അതൊന്നും നല്ലരീതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല അപ്പം കൂടുതലായിട്ടും പെൺകുട്ടികളുടെ വീടുകളിൽ പോയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡി ആക്കുക അല്ലാണ്ട് ഇവർക്ക് സൈക്കിൾ മേടിച്ച് കൊടുത്തിട്ട് എന്താണ് ഇപ്പോൾ കാര്യം കാര്യമൊന്നുമില്ല ഇത് വീട്ടിൽ പോയിട്ട് അച്ഛനമ്മാർ എന്ത് ചെയ്യും വിൽക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ലാണ്ട് ഉള്ള ഒരവസ്ഥയാണ് അപ്പോൾ അത് അതിലും നല്ലത് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇവരുടെ അടുത്തൊക്കെ കാര്യം പറഞ്ഞ് ഇവരെയൊക്കെ സ്കൂളിലേക്ക് വിളിച്ചുകൊണ്ട് വരുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ അങ്ങനെ വരുന്ന സ്ഥിരം വരുന്നവർക്ക് ഈ ലാപ്ടോപ്പും സൈക്കിളും ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്